ഇപ്പോൾ മീൻപിടുത്തവുമായിട്ട് ബന്ധപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് കൂടുതലായിട്ടും അറിയാൻ വേണ്ടിയിട്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് പലരീതിയിലും നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും ഇപ്പോൾ ഓരോരുത്തരോട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പോൾ അതെങ്ങനെയെന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മള് ഇപ്പോൾ മീൻപിടുത്തവുമായിട്ട് ബന്ധപ്പെടുവാണെങ്കില് നമ്മള് നല്ല രീതിയിലുള്ള ചൂണ്ടയും കാര്യങ്ങളൊക്കെ നമ്മള് മെയിനായിട്ട് കൊണ്ടുപോകണം ഇപ്പോൾ ഒരു മീന് നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോയി പിടിക്കാൻ ഒക്കെ ഉദ്ദേശിക്കുകയാണെങ്കിൽ നല്ലൊരു ചൂണ്ടയും കാര്യങ്ങളൊക്കെ നമുക്ക് എപ്പോഴും ആവശ്യമുള്ളൊരു കാര്യമാണ് അപ്പോൾ അത് മെയിൻ ആയിട്ട് നമ്മള് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാരണം ഇപ്പോൾ പൊട്ടിപ്പോകുന്ന ചൂണ്ട പിന്നെ അല്ലെങ്കില് അതിൻ്റെ റാക്കും കാര്യങ്ങളൊക്കെയുണ്ടാവും അതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഒക്കെ പറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പൊട്ടിപ്പോകാനുള്ള സാധ്യതകള് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ഒരു മീൻ നമ്മൾ ചൂണ്ടയിൽക്കുടുങ്ങി കഴിഞ്ഞാൽ നമ്മള് അതിനെ വലിച്ച് കയറ്റണമെങ്കില് അത്യാവശ്യം നല്ല ഫോഴ്സിൽ വേണം നമ്മള് വലിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് പൊട്ടി പോവാണ്ട് നോക്കാനുള്ള കാര്യങ്ങളൊക്കെ ആദ്യം നോക്കുക പിന്നെ അതിന് നല്ല രീതിയിലുള്ള ഇരയും കാര്യങ്ങളൊക്കെ വേണം ഇപ്പോൾ ഒരു മീന് അതിനകത്ത് കുടുങ്ങണമെങ്കില് അതിന് നമ്മള് നല്ല രീതിയിലുള്ള ഇരയും കാര്യങ്ങളൊക്കെ ഇട്ടുകൊടുത്താൽ മാത്രമേ നമുക്കത് കുടുങ്ങുകയുള്ളൂ അപ്പോൾ അതൊക്കെ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് ബാക്കിയുള്ളതൊക്കെ പിന്നെ നമ്മള് ഓൾറെഡി നമ്മള് എന്തെങ്കിലും എന്താ പറയാ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മള് തനിയെ പടിച്ചോളും അതൊക്കെ അങ്ങനെയാണ് ചെയ്യേണ്ടത്